എനിക്കിത് വരെ പോലീസ് സ്റ്റേഷനില്നിന്നോ അല്ലെങ്കില് വക്കീലന്മാരെതോ അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാന് ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല ജനനസര്ട്ടിഫിക്കറ്റില്ലാഞ്ഞിട്ട് എന്താണ് അത് ഉണ്ടാക്കാന് വേണ്ടിയിട്ട് പോയി അത് ജനിച്ചവിടെ പോയി ആദ്യം ആശുപത്രിയില് അപ്പോള് അവിടുന്ന് പറഞ്ഞു കുട്ടിയുടെ അച്ഛന്റെ ആധാര് വേണം അമ്മേന്റെ ആധാര് പറ്റൂല്ലാ അച്ഛന്റെ ആധാര് വേണമെന്ന് പറഞ്ഞു അപ്പോള് അച്ഛനാണെങ്കിലോ ദൂരെയാണ് ജോലി ചെയ്യുന്നത് അതിന്റെ ആധാറുമില്ല അപ്പോള് അമ്മേന്റെ ഇത് പറ്റുല്ലാന്നും പറഞ്ഞു അതായത് ഞങ്ങളവിടുന്ന് എന്താണ് കാരണം എന്നുള്ളത് ചോദിച്ചറിഞ്ഞപ്പോള് പറഞ്ഞു പോലീസ് സ്റ്റേഷനില് പോയിട്ട് ഒരു സര്ട്ടിഫിക്കറ്റുണ്ടാക്കണം എന്നിട്ട് അതു കൊണ്ടുവന്നാല് ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞു ഞങ്ങള് തിരിച്ചവിടുന്ന് കോഴിക്കോട്ടുനിന്നു തിരിച്ച് പോലീസ് സ്റ്റേഷനില് വന്ന് എസ് ഐയിനോട് പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെയാ കുട്ടീനെ സ്കൂളില് ചേര്ത്താന് വേണ്ടിയിട്ടാണ് ജനനസര്ട്ടിഫിക്കറ്റില്ല അപ്പോള് നിങ്ങളെന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്തുതരണം എന്നു പറഞ്ഞപ്പോള് എന്താ എസ് ഐ പറഞ്ഞു അതിനൊരു സര്ട്ടിഫിക്കറ്റെഴുതി തരാം എന്നും പറഞ്ഞിട്ട് എന്താണ് അതിന് അവരെ സെക്യൂരിറ്റീനെ വിളിച്ചു പറഞ്ഞു എന്താണ് ഒന്നെഴുതി കൊട്ക്കേന്നുള്ളത് എന്നിട്ടവിടുന്ന് എഴുതിത്തന്നു ഞങ്ങളതും കൊണ്ടുപോയി എന്താണ് അവിടെ ചെന്ന് ആസ്പത്രിയില് ചെന്ന് എന്താണപ്പോള് പോലീസ് സ്റ്റേഷനില്നിന്ന് തന്നതാണിതെന്നൊക്കെ പറഞ്ഞ് അപ്പോള് കുട്ടീന്റെ സര്ട്ടിഫിക്കറ്റും എല്ലതും അവര് ശരിയാക്കിത്തന്നു അങ്ങനെ ഞങ്ങള്ക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല നല്ലതേ തോന്നിയിട്ടുള്ളൂ ഇതുവരെ